എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എൻ്റെ വാക്കുകളാണ് ഏറ്റവും വലിയ ശക്തി അതായത് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കൂടുതലായിട്ടും വാക്കുകൾ കൊണ്ട് ഇപ്പോൾ നമ്മളെ ആരെങ്കിലും തല്ലി എന്ന് വെച്ചോ അപ്പോൾ നമ്മള് കൂടുതലായിട്ടും വർത്താനം കൊണ്ടായിരിക്കും അവരെ നേരിടുക നമ്മള് ഇപ്പം കയ്യാങ്കളിയിലൂടെ നേരിടുന്നതിനേയും കാട്ടിൽ നല്ലത് അവരുടെ അവരുടെ അടുത്ത് നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ നമ്മള് കൂടുതലായിട്ടും കയ്യാങ്കളിയിലൂടെയുള്ള പ്രയോഗങ്ങള് ഒഴിവാക്കി അതായത് വാക്കുകളിലൂടെ പ്രയോഗിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കില് അവരുടെ ശക്തി ക്ഷ ക്ഷയിക്കും അവര് പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങും അപ്പം അവര് പിന്നെ എന്താ പറയുക ഇപ്പോൾ അടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തുനിയുവോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല അപ്പം നമ്മള് കൂടുതലായിട്ടും വാക്കുകൾ കൊണ്ട് അവരെ ശക്തിയായിട്ട് നേരിടുക അങ്ങനത്തെ അതിനാണ് എനിക്ക് കുറച്ചും കൂടെ മുൻതൂക്കമായിട്ട് തോന്നുന്നത് പിന്നെ എൻ്റെ ബലഹീനത എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്നെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചു കഴിഞ്ഞാല് അതായത് ഇപ്പം എന്തെങ്കിലും അവര് എന്തെങ്കിലും ഒരു മോശമായ മോശമായെന്നല്ല ഒരു തളർത്തിയ രീതിയില് ഒരു സൈക്കോളജിക്കൽ മൂവായിട്ട് പറയുവാണെങ്കില് എനിക്കതൊരു തളർച്ചയായിട്ട് ഫീല് ചെയ്യും അപ്പം അതെൻ്റെയൊരു ബലഹീനതയായിട്ട് മാറുകയും ചെയ്യും